ഞാൻ പഠിക്കുന്ന കോളേജിൽ നിലവിൽ മലയാളം ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് കോമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്റ്റി ബി വോക് ആനിമേഷൻ ബി വോക് അക്കൗണ്ടിങ്ങ് തുടങ്ങിയ കോഴ്സുകളൊക്കെയുണ്ട് എന്നാലും ഞങ്ങൾക്ക് അടുത്തുള്ള കോളേജുകളിൽ പ്രധാനമായിട്ടും

സിനിമ പാട്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ഇതരതര കോഴ്സുകളടങ്ങിയ കോളേജുകളും ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുണ്ട് മാത്രമല്ല ഇവയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മലയാളത്തിനാണ് പി ജി മലയാളം പി ജി എക്കണോമിക്സ് പി ജി ഇംഗ്ലീഷ് പി ജി എം കോം എം എസ് ഡബ്ലിയൂ തുടങ്ങിയ മേഘലകളിൽ പ്രവർത്തിക്കാനൊക്കെയായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഇതര വിദ്യാഭ്യാസ കോഴ്സുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും നമുക്ക് സമാ അടുത്തുള്ള സ്ഥാപനങ്ങളിലും ഉണ്ട് അവിടെ പഠിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥികളിൽ കുറേയധികം പേര് ഡിഗ്രി കോഴ്സുകൾക്കു ശേഷം പി ജിയും കൂടി ചെയ്ത് പുറത്തിറങ്ങുന്ന തരത്തിലുള്ള ഒരു ആധുനിക സംവിധാനങ്ങൾ ഈ കോളേജുകളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായൊരു കാര്യം പിന്നീട് നമ്മൾ നോക്കി കഴിയുമ്പോൾ കുറേ കൂടി ഡോക്ടറേട്ട് പോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറേക്കൂടി ഗവേഷണം നടത്തുവാനുള്ള സൗകര്യങ്ങളുള്ള കോളേജിൻ്റെ പരിമിതികളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയുക ഇപ്പോഴും തുടർന്നുള്ള പഠനത്തിനായിട്ട് അല്ലെങ്കിൽ തുടർന്ന തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് പുറത്തുള്ള ജില്ലകളിലേക്ക് അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്ന മേഖല പശ്ചാത്തലങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാൽപ്പോലും ഈ ചുറ്റുപാടിനെ അനുസരിച്ച് ജനങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുവാനും അറിവ് പങ്ക് വെയ്ക്കുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള പ്ര മേഖല വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കോളേജിൻ്റെ എല്ലാ ഡിപ്പാട്ട്മെൻറ്റുകളിലും കുട്ടികൾക്ക് പൂർണ്ണമായി അവരെ കാര്യ പ്രാപ്തിയോടും കൂടി തന്നെ അവയെ നോക്കി കാണുവാനും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനൊക്കെയായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കോളേജിൻ്റെ മറ്റ് പരിസരങ്ങളിലുള്ള കോളേജുകളിലേക്ക് നോക്കുമ്പോൾ കായിക മേഖലയിൽ താൽപര്യമുള്ളവർക്ക് കായിക മേഖലയിലേക്ക് പുരോഗമിക്കുന്ന തരത്തിലുള്ള കോളേജിൻ്റെ സംവിധാനങ്ങൾ ഉള്ള ക്യാമ്പസുകളുണ്ട് അപ്പം പാട്ടും സിനിമയുമൊക്കെ കൂടുതലായിട്ടാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവരെ കുറേക്കൂടി വളർത്തിയെടുക്കുവാനായിട്ടാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇതര തരത്തിലുള്ള ഫോ എന്നാ സംവിധാനങ്ങളോടു കൂടിയ കോളേജിൽ ക്യാമ്പസുകൾ എന്നും ഉണ്ട് എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം എങ്കിൽ പോലും കുട്ടികളുടെ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ചിത്രരചന തുടങ്ങിയ മേഖലയിലേക്കുള്ള കുട്ടികളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികളതിനായിട്ട് തുടർപഠനത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പഠന സംവിധാനങ്ങൾ പലപ്പോഴും ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ലഭിക്കാതെ പോകുന്നുള്ളതു കൊണ്ടു തന്നെ കൂടുതൽ കുട്ടികളെ വിദേശങ്ങളിലേക്കു പോകുവാനും അങ്ങനെ തുടർ പഠനമാഗ്രഹിച്ച് അവിടെത്തന്നെ ജോലിക്കായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കോളേജിൻ്റെ മറ്റ് കോളേജുകളിൽ നേഴ്സിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കും സെറ്റപ്പ് ഉള്ള കാര്യങ്ങൾ നടുക്കുന്നുണ്ട് എങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അവർ കൂടുതൽ പേരും പുറത്തുള്ള രാജ്യങ്ങളിൽ തുടർ പഠനത്തിനായിട്ട് പുറത്തു പോയി അറിവ് സമ്പാദിക്കാനായിട്ടാണ് നിരന്തരം ശ്രമിക്കുക അതിൻറ്റെ പ്രധാന കാരണമെന്നു പറയുമ്പോൾ ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളോട് കുറച്ച് കൂടി ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് അവരാഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതു പോലെയുള്ള സോഴ്സസ് അവർ തിരഞ്ഞെടുക്കാനായിട്ട് തിരഞ്ഞിട്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകൾക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അവർ മറ്റ് പഠനങ്ങൾക്കായിട്ട് പുറത്തുള്ള പിന്നെ സ്ഥലങ്ങൾ ഇതിനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നത് എന്നിരുന്നാലും ഇത്രയധികം കുട്ടികൾ ഞങ്ങളുടെ കോളേജിലും ഞങ്ങൾക്ക് ചുറ്റുമുള്ള കോളേജുകളിലൊക്കെ അറിവ് നേടുകയും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളിലേക്കൊക്കെ ചേക്കേറുവാനുണ്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഇതിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസിദ്ധിയാർജ്ജിച്ചതും മഹത്വമേറിയതുമായ വിദ്യാഭ്യാസത്തിൻ്റെ അനന്തപർവ്വം ശുദ്ധമാക്കുവാനായിട്ട് നിൻ്റെ കുരുന്നുകൾ ശ്രമിക്കുമ്പോൾ അവരെ നല്ല രീതിയിലേക്ക് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ട് പോകുകയെന്നത് എല്ലാവരുടെയും അത്യാവശ്യമായ ഘടകം തന്നെയാണ്